അങ്കമാലീന്നും മങ്ങാട്ടുകരേന്നുവായിട്ട് ഞങ്ങളുടെ വീട്ടിന്റെ അവിടുന്ന് കുറെ പിള്ളേർ ഹോക്കി മത്സരത്തിനും അ അന്തര്ദേശീയതലത്തിലും ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലൊക്കെ മത്സരത്തിന് പങ്കെടുത്തിട്ടുണ്ട് എന്റെ മോനും അനിയന്റെ മോളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് മോന് ക്രിക്കറ്റ് കളിയായിരുന്നു മൊ അനിയന്റെ മോൾ ഹോക്കി ഫുട്ബോള് അതിനൊക്കെ അവള്ക്ക് ഒരുപാട് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് ഇവിടെ കുറെ കഴിവുള്ള പിള്ളേരുവുണ്ട് അവരൊക്കെ മത്സരത്തിന് പോവാറുവുണ്ട് ഞങ്ങളവരെ അവർക്ക് പ്രൈസൊക്കെ കിട്ടി ഞങ്ങൾ നാട്ടിലെല്ലാവരും കൂടി ആ കുട്ടികളെ അനുമോദിക്കുക ഒക്കെ ചെയ്ത്ണ്ട് ഞങ്ങൾ അവരെപ്പറ്റി ഇതക്കെയാക്കി ഫ്ലെക്സും വെക്കാറുണ്ട് ഞങ്ങളുടെ കവലക്ക് അങ്ങനെ നല്ല രീതിയിൽ ഇവിടെ സ്പോട്സ് കുട്ടികളൊക്കെയുണ്ട്